ആ നിങ്ങളെവിടെയാണ് എല്ലാവർക്കും സുഖം അല്ലെ അതേ ഇല്ല ആ നാളെയാണ് ആ കഴിച്ചോ ഇല്ല അല്ലേ

ആ നമുക്ക് പറയാം നമുക്ക് പോവാം നാളെ വിളിക്കാം എഴുതിയോ ആയിക്കോളൂ ശരിട്ടോ അമ്മയോട് പറയാം

എല്ലാം ശരിയാകും ശരിയാക്കാം ആ ഒക്കെ